സാധാരണ ഇപ്പം ആളുകള് മതത്തിലെ ആചാരങ്ങളും അവധികളൊക്കെ ആചരിക്കുന്നത് എങ്ങനെയാ എന്ന് വെച്ചിട്ടുണ്ടേൽ നമുക്ക് കൂടുതലും ഒരു ഫെബ്രുവരി തൊട്ടൊക്കെയാണ് ഫെബ്രുവരി ജനുവരി തൊട്ടൊക്കെയാണ് നമുക്ക് ഉത്സവ സീസണുകൾ കാര്യങ്ങളൊക്ക തുടങ്ങു തുടങ്ങുന്നത് അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ക്ഷേത്രങ്ങളിലും കാര്യങ്ങളിലുമൊക്കെയുള്ള ഉത്സവങ്ങളിലൊക്കെ കാണുന്നതാണ് നമുക്കീ തീയാട്ട് തീയാട്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതലും തിറ മഹോത്സവങ്ങളിലാണ് അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കില് തീയാട്ട് അതായത് കനലിൽ കൂടെ നടക്കുക പിന്നെ അതായത് നമുക്ക് അവര് ചൂട് എണ്ണയിൽ കൈ ഇടുക അങ്ങനത്തെ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിലെ ഓരോ പിന്നെ ആചാരങ്ങളൊക്കെയാണ് അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവര് വൃതവും ഒക്കെ എടുത്തിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്യാർ അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നാപ്പത്തൊന്ന് ദിവസത്തെ വൃതം അല്ലേൽ പതിനാറ് ദിവസത്തെ വൃതം ഒക്കെ എടുത്തിട്ടാണ് വൃതം ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണ് ഈ കനലിൽ കൂടെ നടക്കുകയും അതായത് തിളച്ച എണ്ണയിന്ന് അപ്പം വാരുക അങ്ങനത്തെ പിന്നെ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശെരിക്കും പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ സാധാരണക്കാരാണെങ്കിൽ ചെറിയൊരു കനൽ വീണാൽ മതി നമ്മുടെ കൈയ്യില് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പൊള്ളും അപ്പം നമുക്ക് ചിന്തിച്ചാൽ മതി അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ശക്തി തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് കൂടുതലും അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് ഇങ്ങനെയൊക്കെയാണ് ആൾക്കാര് അതായത് ഇതൊക്കെ കാണാൻ ആണ് ഒരുപാട് ആൾക്കാരും അമ്പലത്തിലൊക്കെ വരുക ഇപ്പോൾ പടയണി ആണെങ്കിലും പണ ആണെങ്കിലും എല്ലാം അപ്പം ഇങ്ങനെയൊക്കെയാണ് ആ അവധി ദിവസങ്ങളൊക്കെ ആചരിക്കാർ